എന്റെ സെക്കന്ഡ് പ്രോഡക്റ്റ് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാന് ആണേ അത് അത്യാവശ്യം നല്ലൊരു ഫാന് തന്നെയാണ് ഞാന് മേടിച്ചത് പിന്നെ അതായത് പിന്നെ സീലിംഗ് ഫാന് ആണ് മേടിച്ചത് അപ്പം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വ്യത്യാസം കൊണ്ടു മേടിച്ചതാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മഴക്കാലത്ത് എന്ന് പറയുന്നുണ്ടെങ്കിലും നല്ലോണം വെയിലാണ് അതായത് ഭയങ്കര വെയിലല്ലേ അപ്പോൾ വെയിലിനു ഭയങ്കര ചൂട് നമുക്ക് സാധാരണ വേനല്ക്കാലത്തുള്ള വെയിലിനെക്കാളും ഉള്ളത് ചൂടാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടു നമ്മുടെ വീട്ടില് മച്ച് കാര്യങ്ങളൊക്കെയാ നമുക്ക് ഫാനിന്റെ ആവശ്യം ഇല്ലായിരുന്നു പക്ഷേ ചൂട് ഒട്ടും സഹിക്കാന് പറ്റാത്ത ഒരവസ്ഥ വന്നത് കൊണ്ട് മേടിച്ചതാണ് അപ്പം സീലിംഗ് ഫാന് ആണ് മേടിച്ചത് ആദ്യം നമ്മൾ ടേബിള് ഫാന് ആണ് മേടിക്കാന് ഉദ്ദേശിച്ചത് ഇപ്പം സീലിംഗ് ഫാന് ആണ് മേടിച്ചത് സീലിംഗ് ഫാൻ വലിയ ഒരു നെഗറ്റിവ് ഒന്നും പറയാനില്ല എങ്കിലും പിന്നേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടന്ന് പൊടിയൊക്കെ പിടിക്കും സീലിംഗ് ഫാനിന് അതൊരു പ്രശ്നമാണ് പൊടീം കാര്യങ്ങളൊക്കെ വരും അതായത് അപ്പോൾ പൊടി വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതായത് ഇങ്ങനെ കറങ്ങുമ്പം പിന്നേ അതായത് ഫാന് കറങ്ങുമ്പോൾ ഫാനിൽ ഫുള്ള് പൊടിയായിരിക്കും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ പറയുകയാണെങ്കിൽ പിന്നേ ഇത് ഇടും അതായത് ഫാൻ ഇടുമ്പോൾ നമ്മൾക്ക് പിന്നേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി പിടിക്കുന്നത് കൊണ്ടു തന്നെ നമുക്ക് ചിലപ്പോൾ ജലദോഷം കാര്യങ്ങൾ ഒക്കെ വരും അതായത് നമ്മൾ ഒരു ഡേ നൈറ്റ് മുഴുവന് ഇടുമ്പോൾ രാവിലെയാകുമ്പോഴേക്കും മൂക്കടപ്പ് ഒക്കെ ഫീല് ചെയ്യും അങ്ങനത്തെ നെഗറ്റിവ് ഒക്കെ ഉള്ളൂ ഇതിന്